ഞാൻ കൂടുതലായിട്ടും മൃഗങ്ങളെ വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ പട്ടികളെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങും അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീടുകളിൽ തന്നെ നല്ല രീതിയിലുള്ള ആ പട്ടി വളർത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാകും അവിടെ നല്ലയിനം പട്ടികളൊക്കെ നോക്കിയിട്ടാണ് കൂടുതലായിട്ടും വാങ്ങുക അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഒക്കെ നോക്കിയിട്ടാണ് കൂടുതലായിട്ടും പട്ടികളെയൊക്കെ വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പശുക്കളെയൊക്കെ വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അറിയാവുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് കൂടുതലായിട്ടും വാങ്ങുന്നത് കാരണം എന്നു വെച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കില്ലയെന്നൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ളതു കൊണ്ടാണ് നമ്മൾ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ വാങ്ങുക അപ്പോൾ അവർ നല്ലയിനം പശുക്കളെ ഒക്കെ ചിലപ്പോൾ വിൽക്കുന്നുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നല്ല പശുവാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൂടുതലായിട്ടും വാങ്ങുന്നത് എന്ന് പറയുക ഇല്ലെങ്കിൽ ഈറോഡ് ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും പശുവിന്റെ കേന്ദ്രങ്ങൾ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും പശുക്കളെ ഒക്കെ വാങ്ങുക അപ്പോൾ സൊസൈറ്റി മുഖാന്തരം ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുക അപ്പം സൊസൈറ്റിയിൽ നിന്ന് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ലഭിക്കും അത് കൊണ്ട് കൂടുതലായിട്ടും പശുക്കളെ ഒക്കെ വാങ്ങുന്നത് ഈറോഡ് ആ ഭാഗങ്ങളിലായിരുക്കും അല്ലെങ്കിൽ ഈ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്